ഞങ്ങളുടെ അവിടെയൊക്കെ എന്തു കളിയിലാണെങ്കിലും ഈ ഭിന്നശേഷിക്കാരായുള്ളവരെ നമ്മൾ മാറ്റിനിർത്താറില്ല നമ്മളവരെയും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കളിക്കുക എപ്പം ചിലപ്പം അവർക്ക് അവരുടെ രീതിയ്ക്ക് പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യും ഇപ്പോൾ ചിലപ്പോൾ കീപ്പറ് നിൽക്കാനായിരിക്കാം അല്ലെങ്കിൽ ഗോളിൽ നിൽക്കാനും ഒക്കെയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അവർക്കായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഗെയിമ് കളിക്കുക ഞങ്ങളുടെ അവിടെയൊക്കെയാണെങ്കിലും നീന്തലിൽ നമ്മളൊത്തിരിയേറെ ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ കുറേ ഭിന്നശേഷിക്കാരായവരും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നാട്ടിൽത്തന്നെ കുറേ റെക്കോഡുകളും കാര്യങ്ങളൊക്കെ നീന്തലിലുൾപ്പെടെ നമ്മൾ വരുത്തിയിട്ടുണ്ട് അവർക്കായിട്ട് നമ്മൾ അവരെ മാറ്റിനിർത്തപ്പെടേണ്ട സാഹചര്യം നമ്മൾക്കിന്നുവരെ വന്നിട്ടില്ല അവർക്കായിട്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ അതായത് അവർക്കും കാരണം നമ്മളെപ്പോലെതന്നെ അവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ അവർക്ക് ഈയൊരു ഭിന്നശേഷിയാണെന്നുള്ള ഒരിതിലായിരിക്കാം നമ്മൾ ഒരുപക്ഷെ മാറ്റിനിർത്തുക പക്ഷെ അതിനെയൊക്കെ വിപരീതമായിട്ടാണ് നമ്മളിവടെ നമ്മളെല്ലാവരേയും ഒത്തു ചേർത്തിട്ടാണ് കളിക്കുക കാല് മേലാത്തവരേയും അങ്ങനെ കാലിനു ജന്മനാ വൈകല്ല്യമുള്ളവരെയൊക്കെ ഞങ്ങളുടെ ഇടയിൽ കളിക്കാറുണ്ട് ആ ഇടയിലൊക്കെ നമ്മളവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു നമ്മുടെ ടീമിലോട്ട് ചേർത്തു പിടിച്ചിട്ടു തന്നെയാണ് അല്ലാതെ അകറ്റിനിർത്തലെന്നു പറയുന്ന സംഭവം നമുക്കിതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എല്ലാകാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലവരെ നിർത്താറുണ്ട് അവരേ അല്ലാതെ നീ എന്താടാ കളിക്കാത്തത് അങ്ങനെ ഉള്ളയിതൊന്നും ഇല്ല അത് നമ്മൾ നല്ല സ്നേഹത്തോടു കൂടിയിട്ടും വഴക്കിനൊന്നും പോവാത്ത രീതിയിൽ അവർക്കവരായിട്ട് പറ്റുന്ന രീതിയിൽ അവർ ആ ഗെയ്മ് നല്ലരീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരുപക്ഷേ ഒരുപിടി മുമ്പിലായിരിക്കും ഒരുപക്ഷേ ഒരു കുഴപ്പവും ഇല്ലാത്തവരെക്കാളും ഒരുപിടി നല്ലവണം ചിലപ്പം കളിക്കുന്നവർ ചിലപ്പം അവരൊക്കെത്തന്നെയായിരിക്കാം അവരെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നവർക്ക് അവർക്കായിട്ട് ചിലപ്പം നീന്തലിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്കതിനായിട്ടുള്ള വെള്ളവും ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ തന്നു കൊടുത്തു സഹായിക്കാറുണ്ട് പിന്നീട് ഓരോ കാര്യങ്ങളിലും അവരെ അവർക്കായിട്ടുള്ള സൗകര്യങ്ങൾ കാരണം അവർക്കെന്തെങ്കിലും ഈ ഗെയ്മിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഏതു കായിക ഇനമായിക്കോട്ടെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കളിക്കുന്ന ക്രിക്കറ്റും നീന്തലും തുടങ്ങിയ എല്ലാമായിക്കോട്ടെ അതിലും അവർക്കെന്തെലും കുഴപ്പം വന്നാൽ അവരെ സ്പോട്ടിൽ സഹായിക്കാനായിട്ട് നമ്മളെ ഇടയിൽ സജ്ജീകരണങ്ങൾ നമ്മളൊരുക്കിയിട്ടുണ്ടാവും അവർക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ അവർക്ക് സങ്കടകരമാകാത്ത വിധത്തിൽ നമ്മൾ മാക്സിമം അവരെ ചേർത്ത് നോക്കാൻ തന്നെയാണ് നമ്മളിവിടെ നോക്കുക അല്ലാതെ നമ്മൾ അവരെ മാറ്റിനിർത്തിയോ ഒറ്റപ്പെടുത്തിയിട്ടോ അങ്ങനെയൊന്നും നടത്തില്ല കാരണം നമ്മളെപ്പോലെതന്നെ അവർക്കും ആഗ്രഹങ്ങളുണ്ട് അതുപോലെയൊക്കെയാണല്ലാതെ കായികതാരങ്ങളെ ഈ നമ്മുടെ ഞങ്ങളുടെ പ്രദേശത്ത് ഏറെ സഹായിക്കുന്നുണ്ട് അവരെ പിന്നെ മാറ്റിനിർത്തേണ്ട സാഹചര്യം വന്നിട്ടില്ല പിന്നീട് എല്ലാത്തിലും ഇവരെ ഉൾപ്പെടുത്തുവാനും കഴിയില്ല കാരണം ഈ കുറവുകളിൽ ചില കാര്യങ്ങളിൽ ചിലപ്പം അവരെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല എന്റെ അനുഭവത്തിൽ ഇവടെ ഉള്ളവർ ഞങ്ങൾ അകറ്റിനിർത്താറില്ല ഞങ്ങൾ ചേർത്തു പിടിക്കാറെ ഉള്ളു അവർക്കായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട്